ഹലോ ആ അതെ അതെ പറയൂ യെസ് മാം ആ ഓക്കെ പേര് രഞ്ജന അല്ലേ ഓക്കെ മുംബൈ ഓക്കെ

ഓ ഓക്കെ ഓക്കെ അപ്പോൾ മാം നിങ്ങൾ കൃത്യസ്ഥലത്താണ് എത്തിയേക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരു ടൂർ പാക്കേജ് ചെയതുകൊണ്ട് ഇരിക്കുകയാണ് ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂര് കലാമണ്ഡലം അവിടെ അവർ ഒരു ഒരാഴ്ചത്തെ നീണ്ടുനിൽക്കുന്ന ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ഈ കേരളയുടെ തനതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കഥകളി ചാക്യാർകൂത്ത് പിന്നെ മോഹിനിയാട്ടം ആ അതെ അതെ എല്ലാം ഉള്ള ഒരു കലാരൂപം പോലെ ആണ് അതിൻ്റെ ഒരു പരിപാടി ആയിട്ടാണ് ഒരാഴ്ചത്തെ പരിപാടി ആയിട്ടാണ് അവർ സംഘടിപ്പിക്കുന്നില്ലേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പരിപാടി ഉണ്ടാവും ആ അടുത്ത ഈ ഒരു ജനുവരി അതെ ജനുവരി ഇരുപത് തൊട്ടാണ് അവരുടെ പരിപാടി തുടങ്ങുന്നത് ഇരുപത് തൊട്ട് ഇരുപത്തിയേഴ് വരെ അപ്പോൾ വേണമെങ്കിൽ ആ പാക്കേജ് ഞങ്ങൾ തരാം ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ കേരളത്തിന് പുറമേയുള്ള ആൾക്കാർ ഞങ്ങൾ കാസർഗോഡുനിന്നാ തുടക്കം അപ്പോൾ കാസർഗോഡുനിന്ന് ആദ്യം ഇവിടുത്തെ കാസർഗോഡ് കണ്ണൂർ ഉള്ള തെയ്യം തെയ്യം കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാസർഗോഡിൻ്റെ തനതായിട്ടുള്ള തെയ്യങ്ങൾ പിന്നീട് കണ്ണൂരിലെ തെയ്യങ്ങൾ ആദ്യം ഇവിടുത്തേക്ക് ഒരു വിസിറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാണ് നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ബസ്സ് പാക്കേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കി കൊണ്ട് തൃശ്ശൂരേക്ക് പോകും തൃശ്ശൂർ കലാമണ്ഡലത്തിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ആലപ്പുഴയിലേക്ക് ഒരു വിസിറ്റ് ഉണ്ട് കാരണം ആ കേരളത്തിൻ്റെ ആ ഒരു സംസ്കാരം പൈതൃകമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൗസ് ബോട്ടും ഒക്കെ ഉൾപ്പെടുന്നത് ആണല്ലോ അപ്പോൾ അതും കൂടി അറിഞ്ഞുകൊണ്ട് ഹൗസ് ബോട്ടിൽ തന്നെ ഒരു കലാപരിപാടിയും ഉണ്ട് കഥകളി അവതരിപ്പിക്കുന്നത് പോലെ ഈ പുറത്തുന്ന് ഉള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാമിന് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഓ അവിടെ ഒരു മൂന്ന് ദിവസമേ ഉള്ളൂ ആ അതെ കാസർഗോഡ് ഒരു ദിവസവും കണ്ണൂര് രണ്ട് ദിവസമായിട്ടും അവിടെ പിന്നെ പിന്നീട് നമ്മൾ ആ പോവുന്ന വഴിക്ക് തന്നെ മലപ്പുറത്ത് വെച്ച് തിറ പിന്നെ പടയണി ഇതും കൂടി അവൈലബിൾ ആക്കുന്നുണ്ട് കാരണം മൊത്തത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ആ യക്ഷഗാനം ഇപ്പോൾ മെയിനായിട്ട് എന്നാന്ന് വെച്ചാലേ യക്ഷഗാനം കർണാടകയുടെ കലാരൂപമാണ് എന്നാലും കാസർഗോഡിൽ ചെയ്യുന്നണ്ട് നമ്മൾ അപ്പോൾ മാമിന് ഇൻ്ററസ്റ്റഡ് ആണെങ്കിൽ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോയെന്ന് ഞാൻ ഇവിടെ ഒന്ന് മാനേജറോട് സംസാരിച്ച് നോക്കാം നമ്മുടെ നിലവിലുള്ള പ്ലാനിൽ ഇപ്പോൾ കേരളത്തിലെ കലാരൂപങ്ങളാണ് പിന്നെ കാസർഗോഡും ഭാഗം ആയത് കൊണ്ട് യക്ഷഗാനം കിട്ടുമോയെന്ന് ഒന്ന് നോക്കാം പാക്കേജിന് പ്രൈസ് മൊത്തത്തിൽ ഒരു ഇരുപത്തി അയ്യായിരം വരുന്നുണ്ട് പിന്നെ ആ അതെ ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അയ്യായിരം രൂപ ഓഫാണ് ഇരുപതിനായിരത്തിൽ തന്നെ ചെയ്യും അപ്പോൾ ആദ്യം നിങ്ങൾ അതിന് പിന്നെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ലോട്ട് നമ്മൾ എടുക്കും ഇതിപ്പോൾ ന്യൂ ഇയർ ഓഫറാണ് പുതുവർഷം ആയത് കൊണ്ട് ആണ് ആ ലോട്ട് എടുക്കുന്നതിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ അയ്യായിരം രൂപ ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ ആ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തരണം രജിസ്റ്റർ ചെയ്യാൻ വാട്ട്സ്ആപ്പ് ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ മാം അതിലേക്ക് മാമിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ തന്നാൽമതി ഫോൺ നമ്പർ ഇങ്ങനെ ഒക്കെ പിന്നെ ഒരു രണ്ടായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടക്കണം ഓക്കെ അപ്പോൾ എന്തേലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ പിന്നെ വാട്ട്സ്ആപ്പിൽ മാമിന് കംപ്ലീറ്റ് ബ്രോഷർ അയച്ചുതരാം ഓക്കെ ശരി താങ്ക് യൂ ഹാവ് എ നൈസ് ഡേ ഓക്കെ